ഞാൻ ശേഖരിച്ചിട്ടുള്ളത് എന്താണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റാമ്പുകൾ കിട്ടുമായിരുന്നു ഒരുപാട് സ്റ്റാമ്പുകൾ സ്കൂളിൽനിന്ന് കിട്ടുമാരുന്നു അതായത് ശിശുദിനത്തിന് ശിശുദിനത്തിനൊക്കെ സ്റ്റാമ്പുകൾ കിട്ടും ചാച്ചാജീന്റെ സ്റ്റാമ്പുകളെല്ലാം കിട്ടും അതൊക്കെ ശേഖരിച്ച് വച്ചിട്ടുണ്ട് അതുപോലെതന്നെ നാണയങ്ങളും അമ്പതു പൈസയായാലും ഇരുപത്തഞ്ചു പൈസയായാലും അങ്ങനത്തെ നാണയങ്ങളെയൊക്കെ ശേഖരിച്ചു വച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ എന്തോ മൂല്യമാണ് നൽകുന്നതെന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ജനറേഷനിൽ ഉള്ളവരുടെ ആരുടെ അടുത്തും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല സ്റ്റാമ്പുകളായാലും നാണയങ്ങളായാലും അതൊന്നും ആരുടെ അടുത്തും ഉണ്ടാവില്ല പണ്ടുകാലത്തെ അപ്പോൾ നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നടുത്തോ അതുകൊണ്ട് നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറകൾക്കും അത് നമ്മൾക്ക് കാണിച്ചു കൊടുക്കാനും കഴിയും അവരോട് പറഞ്ഞു കൊടുക്കാം ഈ നാണയങ്ങളും സ്റ്റാമ്പുകളുമെല്ലാം നമ്മുടെ കാലത്ത് നമുക്ക് കിട്ടിയതാണ് അപ്പോൾ നമ്മളത് സൂക്ഷിച്ചു വച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഇതും വലിയൊരു വിലപിടിപ്പുള്ളൊരു മൂല്യം തന്നെയാണ് എന്നൊക്കെ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം